ഇപ്പോൾ മലയാള ഭാഷയില് കാലക്രമേണ ഉണ്ടായ മാറ്റമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പു പു പൂർണമായിട്ട് നമ്മള് അതായത് ഇപ്പോൾ മലയാളത്തെ വിട്ട് തള്ളി മറ്റ് ഭാഷകളെ ഉപയോഗിച്ച് മലയാളവും മറ്റ് ഭാഷകളും ഉപയോഗിച്ച് കൂട്ടിക്കലർത്തിയാണ് സംസാരിക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ആംഗലേയ ഭാഷ ഭാഷ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ അച്ചടി ഭാ ഭാഷ അങ്ങനെക്കെയാണ് പറയുക പക്ഷെ ഇപ്പം ആംഗലേയ ഭാഷ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഇംഗ്ലീഷും മലയാളവും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഭാഷകളാണ് കൂടുതലായിട്ടും സംസാരിക്കുക ഇപ്പഴത്തെ തലമുറയാണെങ്കിലും ഇപ്പഴത്തെ വളർന്ന് വരുന്ന പിള്ളേരാണെങ്കിലും ശരി നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഇംഗ്ലീഷും മലയാളവും കൂടി കൂടിച്ചേർന്ന രീതിയിലാണ് സംസാരിക്കാറ് അപ്പം നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അതായത് മലയാളത്തെ നമ്മള് വിട്ട് തള്ളുന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് മലയാളം നമ്മുടെ മാതൃ ഭാഷയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് പോകുക അങ്ങനത്തെ കാര്യങ്ങളക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള പ്രയാസങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ട് മലയാളത്തില് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പല രീതിയിലുള്ള ഭാഷകള് കൊണ്ടുള്ള ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഇപ്പോൾ ഉള്ള ഭാഷകൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ഒരുമാതിരി എന്താ പറയുക നമുക്ക് ഇഷ്ട്ടപ്പെടാത്ത രീതിയിലുള്ള ഭാഷകള് കാര്യങ്ങളെക്കെയാണ് ഉയർന്ന് വന്നിട്ടുള്ളത്